ഗ്രാമീണ നഗരധ്യാപന രീതികളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഗ്രാമീ ഗ്രാമീണ അധ്യാപന രീതികളിൽ കൂടുതലും നമുക്ക് മലയാളം മീഡിയം അങ്ങനത്തെ ഒക്കെ ആയിരിക്കും നഗരങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൂടുതല് കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ ഒക്കെ ആയിരിക്കും ഗ്രാമീണ മേഖലയിലെ കുട്ടികള് കുറച്ച് പാവപ്പെട്ടവരും നഗരത്തില് കുറച്ച് പൈസക്കാരും അങ്ങനെ ഒക്കെ ആയിരിക്കും പക്ഷേ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം എവിടുന്നാണെങ്കിലും പഠിക്കും അധ്യാപകര് അതുപോലെ പഠിപ്പിച്ചും കൊടുക്കും പക്ഷേ അതായത് പിന്നെ ഫീസ് ഫീസിന്റെ കാര്യത്തില് നമുക്ക് വളരെ അധികം ഇളവ് കിട്ടും ഗ്രാമീണ നഗരത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫീസുകളും കൂടുതൽ ആയിരിക്കും പിന്നെ അധ്യാപന രീതി എന്ന് പറഞ്ഞാൽ അധ്യാപകർ എവിടെയാണെങ്കിലും നമ്മളെ കുട്ടികളെ പരമാവധി പഠിപ്പിക്കാനാണ് നോക്കുക